ഹലോ ഇതാരായിരുന്നു ആ അതെലോ ഇത് ട്രീ ഡ്രൈവിംഗ് സ്കൂളാണല്ലോ

ആ ചെയ്യാലോ ടൂ ആണോ ഫോറാണോ എടുക്കുന്നത് രണ്ടും ഒരുമിച്ചാണോ രണ്ടും ഉണ്ടല്ലേ ആ രണ്ടും ഉണ്ട് ഒരുമിച്ച് ഇവിടുത്തെ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് അത്പോലെ തന്നെ ടൂ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു റേറ്റ് വരുന്നു ടൂ രണ്ടിൻ്റെ കൂടെ പ്രാക്റ്റീസ് അവരെ നമ്മൾ അപ്പോൾ ലേണേഴ്സെടുത്ത് കൊടുക്കും അത് കഴിഞ്ഞ് ഫസ്റ്റ ഓഫ് ആൾ നിങ്ങളുടെ ആന് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്സും പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്ത പേപ്പറും അത്പോലെ തന്നെ ആധാർ കാഡായിട്ട് ഡ്രൈവിംഗ് സ്കൂൾലോട്ടെരാ അന്നേരം നമുക്ക് ലേണേഴ്സ്നുള്ള ആപ്ലിക്കേഷൻ വെക്കും നമ്മുടെ ഓഫീസീന്ന് അത്പോലെ അത് കഴിയുമ്പോഴ്ത്തെന് ലേണേഴ്സിനുള്ള ആപ്ലിക്കേഷൻ വെച്ച് കഴിയുമ്പോഴ്ത്തേനും തന്നെ നമുക്ക് ഒരു ആഴ്ചക്കുള്ളിൽ പോലീസ് വേരിഫിക്കേഷൻ കോള് വരും അത് കഴിഞ്ഞ് നമുക്ക് ഇത് നമുക്ക് ഒന്നെങ്കിൽ പീര്മേട്ടി നമുക്ക് എടുക്കാം അല്ലേൽ അടുത്ത അല്ലെങ്കിൽ നമുക്ക് ഇടുക്കിയിൽ തന്നെ ചെറുതോണി പോയെടുക്കാം കാരണം രണ്ട് സ്ഥലത്താണ് ഇടുക്കിയിലുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് അതിന് ആകു അത് കഴിയുമ്പോഴ്ത്തേന് ലേണേഴ്സെട്ക്കുമ്പോഴ്ത്തേന് മുപ്പത് ദിവസം ലേണേഴ്സെടുത്ത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറാൻ പറ്റുള്ളു ആ മുപ്പത് ദിവസമാണ് നമുക്ക് പ്രാക്റ്റീസ് വരുന്നത് മുപ്പത് ദിവസത്തെ ബ്രേക്കി സമയത്ത് പ്രാക്റ്റീസുണ്ട് നമുക്ക് പറയുമ്പോഴ്ത്തേനും ആദ്യമേ ഫസ്റ്റ് റോഡാണ് റോഡിൽ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റീയറിംഗ് ബാലൻസ് പിന്നെ ദെൻ ഹാൻഡ് പിന്നെ ഗിയറ് അത് കഴിഞ്ഞാൽ ഗിയറ് വരുന്നു അത് സാധാരണ പോലെ ഓടിപ്പിക്കുന്നു അത് ഫസ്റ്റ് സ്റ്റീയറിംഗ് ബാലൻസ് വന്നിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടി ക്കാറാ തുടങ്ങാൻ പറ്റത്തുള്ളൂ അതാണ് ഇവിടുത്തെ ഒരു സിമ്പിൾ പ്രൊസീജ്യറായിട്ടാണ് തുടങ്ങുന്നത് പണ്ട് തൊട്ടെ രീതിയായത് കൊണ്ട് അങ്ങനെ തന്നെ ലേണേഴ്സെന്ന് പറയുമ്പോഴത്തെന് ഇരുപത് ചോദ്യമായിരിക്കും ഇരുപത് ചോദ്യത്തിൽ പന്ത്രണ്ട് എണ്ണം റെഡി ശരിയാക്കണം ശരിയാക്കണം അത് പീര്മേട്ടിലാണെങ്കിൽ അവിടെ പീര്മേടോഫീസിൽ ഓഫീസിലായിരിക്കും അപ്പോൾ പീര്മേടോഫീസിൽ നിന്ന് പറയുമ്പോഴ്ത്തേനും അവിടെ എളുപ്പമായിരിക്കും ക്വസ്റ്റ്യൻസ് കാരണം നമ്മുടെ ബുക്കിൽ ഓൺലൈനെൽ എപ്പോഴും നടക്കുന്നുണ്ട് കാരണം ഒരു ആ ഈ ഒരു പത്ത് നമ്മൾ അല്ലെങ്കിൽ അയ് പീരുമേട് പോകുന്ന വഴിക്ക് ബോഡ് നോക്കിയാൽ മതി ബോഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ആ ഉണ്ടുണ്ട് അതൊക്കെ അതൊക്കെ ചോദിക്കത്തുള്ളൂ

ആ പറ്റുമല്ലോ ഞാൻ ഞാൻ എപ്പോഴും ഫ്രീയുണ്ട് പിന്നെ അതോ ആ വാട്സപ്പ് ചെയ്തേക്കാം പിന്നെ രണ്ട് റ്റു മൂന്ന് മണി വരെ പ്രാക്റ്റീസായിരിക്കും ആ അത് പിന്നെ ഒന്ന് റ്റു രണ്ടിലാണ് ഞാൻ ഇവിടെ കാണാറ് പക്ഷേ അവിടെ കാണുമായിരിക്കും ഓ ഒന്ന് റ്റു രണ്ട് ടൈമിൽ അവിടെ എപ്പോഴും ഫ്രീയാവ്ന്നില്ലേ പിന്നെ ഓഫീസ് സ്റ്റാഫുണ്ട് സ്റ്റാഫിൻ്റട്ത്ത് ഞാൻ പറഞ്ഞേക്കാം പുതിയ ഒരാൾ വരുന്നുണ്ടെന്ന് പിന്നെ അത്പോലെ തന്നെ എന്താ പറയുന്നത് നേരത്തെ ഡ്രൈവിംഗ് ചെയ്യുന്ന ആളായിരുന്നോ ചെയ്തിട്ടുണ്ടോ ആ ഓക്കേ ആ പഠിപ്പിച്ച ആ പിന്നെ എച്ചെടുക്കുന്നത് ഏറ്റവും അവസാനമായിരിക്കും അവസാനത്തെ ഒരാഴ്ചയായിരിക്കും എച്ചെടുക്കുന്നത് ആ ആ പിന്നെ ബൈക്കിൻ്റെ എട്ടെടുപ്പിക്കുന്ന ബൈക്ക് ഓടിക്കാൻ അറിയാമോ ഓടിച്ചെന്ന് കയറ് എന്നാൽ പിന്നെ പ്രാക്റ്റീസ് സമയത്ത് എട്ട് വേണമായിരുന്നു പിന്നെ നല്ല റേറ്റ് കുറവായിരിക്കും പതിനായിരമേ മേടിക്കത്തുള്ളൂ കാരണം ബൈക്ക് പ്രാക്റ്റീസ് കൂടി കൂട്ടിയാണ് രണ്ടായിരം കാരണം നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളെ ഒരു അഞ്ച് ആറ് കിലോമീറ്ററാണ് അഞ്ച് ആറ് കിലോമീറ്ററാണ് ഓടിപ്പിക്കുന്നത് ആറ് ആറ് ആറ് ടു പത്താണ് ഞങ്ങൾക്ക് മിനിമം വരുന്നത് അന്നേരത്തേനും അങ്ങനാന്ന് റേറ്റ് തീരുമാനിക്കുന്നത് ഇത്ര കിലോമീറ്ററ് ഇത്ര റേറ്റാണ് അത്കൊണ്ട് ഞാൻ പറയുന്നു ആ ഇത് മതിയായിരിക്കും പിന്നെ മനസ്സിലായില്ലേ ശരി എന്നാൽ